ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായിട്ടും നഴ്സിംഗ് വിഭാഗത്തിലാണ് കൂടുതലായിട്ടും പിള്ളേര് പഠിക്കാറുള്ളത് കാരണം അതിനാണ് കൂടുതല് സ്കോപ്പ് കാര്യങ്ങളൊക്ക ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഏത് എന്താ പറയുക ആശുപത്രികളിൽ പോയാലും നേഴ്സ് ഇല്ലാത്ത ഒരു ആശുപത്രികള് ഇല്ല അപ്പോൾ കൂടുതലായിട്ടും നഴ്സിംഗ് വിഭാഗത്തിലാണ് ആൾക്കാര്കള് പോകാറുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും ഡിഗ്രി കോഴ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബി എസ് സി അങ്ങനത്തെ കോഴ്സുകളാണ് കൂടുതലായിട്ടും ഉള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ബി എസ് സി നഴ്സിംഗ് പിന്നെ ബി എ മലയാളം അങ്ങനത്തെ ഡിഗ്രി കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബി എ ഇംഗ്ലീഷ് പിന്നെ ബീക്കോമ് ബീക്കോമ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാല് അക്കൗണ്ടിംഗ് അങ്ങനത്തെ ഏരിയാസിലേക്കാണ് പോകുന്നത് പിന്നെ സി എ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഐ ടി വിഭാഗത്തിൽപ്പെട്ട കോഴ്സുള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഐ ടി വിഭാഗത്തിൽ നിന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് കൂടുതലായിട്ടും നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് യുഗമാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പം അതിൻ്റെ രീതിയിലുള്ള കോഴ്സുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എഞ്ചിനീയറിംഗ് അപ്പം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പലരീതിയിലുള്ള കോഴ്സുകളുണ്ട് ഇപ്പം സിവില് ഉണ്ട് സിവില് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം സിവില് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗണിത പരമായിട്ട് അതായത് ബി എസ് സി നഴ്സിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്